അതെ അതെ ഡോക്ടറാണ് എന്തേരുന്നു അതെ ചുമയുണ്ടോ അതെ മഴ എന്തേലും കൊണ്ടായിരുന്നോ അപ്പോപിന്നേ പിന്നെ വേറെന്തെങ്കിലും അസ്വസ്ഥത അങ്ങനെന്തേലും ഉണ്ടോ പനിയുണ്ടല്ലേ അതെ ഓക്കെ എവിടേങ്കിലും കാണിച്ചായിരുന്നോ എവിടെയാ കാണിച്ചേ മാനന്തവാടി കാണിച്ചായിരുന്നു അപ്പോൾ കുറവില്ലായെന്നിട്ട് അതെ അതെ മറ്റേ പാരസിറ്റമോളായിരിക്കുംല്ലേ തന്നത് അതെ ചുമേറ്റെന്തെങ്കിലും മരുന്ന് കഴിച്ചോ തന്നായിരുന്നു എന്തായിരുന്നു മരുന്നെന്നറിയോ കുപ്പി മരുന്നാണോ ഒരു ബോട്ടില് ഓക്കെ ഓക്കെ ഇപ്പോ വേറെന്തെങ്കിലും വല്ലാണ്ട് പനി കൂടുവോ അങ്ങനെന്തെങ്കിലുണ്ടോ ഇടയ്ക്ക് കൂടുന്നുണ്ടല്ലേ അതെ മരുന്ന് എത്ര നേരാ മൂന്ന്നേരാ കഴിക്കാൻ തന്നേ മൂന്നേരം കഴിക്കുന്നുണ്ടോ അതെ ഓക്കെ അങ്ങനാണെങ്കില് ഞാന് വേറൊരു മരുന്നെഴുതി തരാം അതെ അതൊന്ന് കഴിച്ച് നോക്ക് അതെ എന്നിട്ട് കുറവില്ലെങ്കില് രണ്ടാമത് ഒന്നൂടെ കാണിക്കണം പിന്നെ എന്താ പറയുക ചൂടുവെള്ളത്തിൽ കുളിക്കണം തണുപ്പ് അധികം പാടില്ല പിന്നെ ഫാനിട്ടിട്ടൊന്നും കിടക്കണ്ട അതെ പിന്നെ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതെ ചുക്ക് കാപ്പിയില്ലേ അതെ അതെടയ്ക്ക് അതെ കുടിക്കണം ഇപ്പം നമ്മക്ക് നല്ല നെറ്റിക്ക് നല്ല ചൂട് വരുവാണെങ്കില് തുണി നനച്ച് ഇടുന്ന നല്ലതായിരിക്കും

പിന്നേ ഇത് ഒന്ന് നോക്കീട്ട് മറ്റേ ടെസ്റ്റിയ്യാനുണ്ടാകും ബ്ലഡ് ഒന്ന് ടെസ്റ്റിയ്യണം അതെ ബ്ലഡൊന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ മൂത്രം ഒന്ന് ടെസ്റ്റെയ്യണം അതെ ഇതൊക്കെ ടെസ്റ്റെയ്തിട്ട് നാളെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറ്റുവോ അതെ ഓക്കെ അതെ കുറവില്ലെങ്കില് ഇന്ന് ഇത് കഴിക്കണം എന്നിട്ട് കഴിച്ചിട്ട് കുറവില്ലെങ്കില് ബ്ലഡ്ഡും മൂത്രവും ടെസ്റ്റെയ്യാ എന്നിട്ട് കൊണ്ട് കാണിക്കുക അതെ ഓക്കെ അതെ ശരി